ഹലോ ചേട്ടാ ആ ഞാൻ വിളിച്ചത് നാളെ എനിക്കൊന്നു പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ വരെ പോകണം ഒലവക്കോട് രാത്രി ഒരു പതിനൊന്നാരക്കാണ് ട്രെയിന് അപ്പോ ആ സമയത്ത് നിങ്ങളെ ക്യാബ് കിട്ടുമൊ എന്നറിയാൻ വേണ്ടി വിളിച്ചതാണ് രാത്രി കാലങ്ങളില് വണ്ടി അവൈലബിളാണോ അതറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത് ആ ഞാൻ കണ്ണൂര് വരെ ഒന്നു പോകാനായിരുന്നു ആ പതിനൊന്ന് പതിനൊന്നാരക്ക് എനിക്കവിടെ എത്തണം ഒരു പന്ത്രണ്ടര പന്ത്രണ്ടേ മുക്കാലാവുമ്പോഴാണ് ട്രെയിൻ എത്തുന്നത് കുറച്ച് നേരത്തെ എത്താറുണ്ട് ആഹ് ആ എനിക്ക് പോകേണ്ടത് ഇവിടെ മങ്കരേന്നാണ് മങ്കരേന്നാണ് പോകേണ്ടത് മങ്കരയിലോട്ട് വന്നാൽ മതി ഹാ ശരി